നടുവേദനയ്ക്ക് നമുക്ക് കുറേ അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ നടുവേദനക്ക് പ്രചാരത്തിലുള്ളത് മുട്ടിക്കുളങ്ങര എണ്ണ അതുപോലെ കുഴക്കംപാട് എണ്ണ അങ്ങനെ രണ്ടുമൂന്നു ടൈപ്പ് എണ്ണകളുണ്ട് അപ്പോൾ അത് ഓരോന്നിനും ഓരോ രീതിയിലുള്ള എന്താ പറയുക കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുട്ടിക്കുളങ്ങര എണ്ണയെന്ന് പറയുമ്പോൾ ആ എണ്ണ കൃത്യമായിട്ട് നമ്മള് അത് കറക്ടാ അത് മേടിക്കുക അത് അങ്ങനെ തേക്കുക അതായത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കുക അതുകഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കളഞ്ഞാൽ മതി മറ്റേ കൊഴക്കംപാട് എണ്ണ നോക്കുകയാണെന്ന് പറയുമ്പോൾ അതിന്റെ അത് ആദ്യം നമ്മള് തേക്കണതിന് മുൻപ് നമ്മള് ലൈറ്റ് ആയിട്ട് എണ്ണ ഒന്ന് ചൂടാക്കണം എന്നിട്ട് ആ ലൈറ്റ് ചൂടോടുകൂടി നമ്മുടെ നടുവിന് കറക്ടായിട്ട് പുരട്ടി കുറച്ചുനേരം ഇരുന്ന് പിന്നെ നമ്മളൊന്ന് ആവി പിടിച്ച് അതു കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ കുടിക്കണം കുളിക്കണം അപ്പോഴേ നമുക്ക് അതിന്റെ എഫക്ട് കിട്ടുകയുള്ളൂ അതുപോലെ പിന്നെ കിഴി വെക്കൽ അതുപോലെ ചൂടുപിടിക്കുക ആവി പിടിക്കുക അങ്ങനത്തെ കുറേ ഇതുണ്ട് പിന്നെ നമ്മള് ആശുപത്രി പോയിക്കഴിഞ്ഞാൽ അവര് ഒരു എണ്ണ തരും മുറിവെണ്ണ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ അതായത് നമ്മളെ പഞ്ച ഇതുതന്നെ ആയുർവേദാശുപത്രിയിൽ പോയിക്കഴിഞ്ഞാൽ അവര് ഈ ഒരുതരത്തിലുള്ള എണ്ണ തരും അതും വലിയ എന്താ പറയുക കുഴപ്പമില്ലാത്ത തന്നെയാണ് അത്യാവശ്യം നല്ല എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്